ഇപ്പോൾ ഈ ഹെഡ് സെറ്റ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിട്ട് ഏകദേശം ഒരു ഫോർ മന്ത്സിന് മേലെയായി അപ്പോൾ മേടിച്ച ടൈമിൽ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കയ്യിലൊക്കെ കണ്ടിട്ടാണ് ഞാനിത് മേടിച്ചത് അപ്പോൾ അവർ പറഞ്ഞത് ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിത് മേടിച്ചപ്പോൾ മേടിച്ച ടൈമിൽ ഇതിന് നല്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വാട്ടർ പ്രൂഫാന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഞാൻ അവർ യൂസ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നീട്ടാണ് ഞാനീ പ്രൊഡക്ട് മേടിക്കുന്നത് മേടിച്ചപ്പോൾ ഇതിനു നല്ല സൗണ്ടിൻ്റെ ക്വാളിറ്റി ഒക്കെ നല്ല എന്തായിട്ടാ എനിക്ക് തോന്നിയത് നല്ല സൗണ്ടിൻ്റെ ക്ലാരിഫിക്കേഷനായാലും പാസായാലും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ തന്നെ ഇതിനു എന്താ പറയാ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ ഉള്ള കൊണ്ടാണ് ഞാനിതു വാങ്ങിയത് പിന്നെ കുറച്ചു നാൾ യൂസ് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ നെഗറ്റീവ്സ് ഒക്കെ എനിക്ക് പറയാൻ പറ്റിയത് കാരണം ഇതിൻ്റെ വയറിൻ്റെ എന്താപറയാ വയറൊക്കെ ചെറുതായിട്ട് വിട്ട് വരാനൊക്കെ തുടങ്ങിരുന്നു പിന്നെ ഒരു ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് സൈഡിലെ ബഡ്ഡ് എന്താപറയാ അത് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ വാട്ടർ പ്രൂഫാണെന്ന് പറഞ്ഞെങ്കിൽ ഇതിൽ എന്താപറയാ മഴ ഇടിച്ചു മഴേൻ്റെ ജസ്റ്റ് സ്പ്ലാഷ് അടിച്ചപ്പോൾത്തന്നെ ഇത് ഡാമേജ് ആകാൻ തുടങ്ങി അങ്ങനെ കുറേ ബുദ്ധിമുട്ട് പിന്നെ ബാക്കപ്പ് ബാറ്ററി ബാക്കപ്പ് ഒന്നും വലിയ കാര്യമായിട്ട് എനിക്ക് പിന്നെ കിട്ടീല്ല അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്